നൃത്തം സമൂഹത്തിൽ നല്ലൊരു മാതൃകയായിട്ടുള്ള

ആക്ടിവിറ്റിയാണ് പല സമൂഹത്തിൽ നിന്നും ചെറു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പലതരത്തിലുള്ള നൃത്തങ്ങൾ നൃത്തങ്ങളിൽ ഏർപ്പെടാറുണ്ട് ഈ നൃത്തം സാമൂഹികതലത്ത് ജാതിമത ബേധമന്യേ എല്ലാവരും ചേരുന്നതായി അല്ലെങ്കിൽ പങ്കെടുത്ത് നൃത്തം നടത്തും ചേരുന്ന ചെയ്യുന്നതായി കണ്ടിട്ടുമുണ്ട് ഉദാഹരണത്തിൽ ഇവിടെ അടുത്തുള്ള ഡാൻസ് ക്ലാസിൽ ചെറിയ രണ്ട് രണ്ടാം ക്ലാസ്സ് മുതൽ കൊണ്ടുള്ള പ്ലസ്റ്റു വരെ പഠിക്കുന്ന ചെറിയ കുട്ടികൾ പെൺകുട്ടികളും ആൺകുട്ടികളും നൃത്തം പഠിക്കാനായിട്ട് വരുന്നുണ്ട് അത് ഇതുപോലെ തന്നെ ജാതി മതബേധമന്ന്യേ വന്നു ചെയ്യുന്നു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന വിഭാഗത്തിലുള്ളവരെല്ലാവരും വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് അവിടെ നല്ലൊരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി നല്ലൊരു മെസ്സേജാണ് നല്ലൊരു അർത്ഥമുള്ള ഒരിതാണ് നൽകുന്നത്